നമ്മുടെ ഈ കേരളത്തിലേറ്റവും കൂടുതൽ വർദ്ധിച്ചുകൊണ്ട് വന്നിരിക്കുന്ന കാര്യങ്ങളാണ് ഈ ലഹരി പദാർത്ഥങ്ങൾ അടിച്ച് ഓരോ വിദ്യാർത്ഥികളും ഓരോരോ മാരകമായ രോഗങ്ങൾക്കും അതുപോലെതന്നെ ഓരോ ഓരോ കൊലപാതകങ്ങൾ ചെയ്യാനുള്ള ടെൻഡൻസി കൂടുന്നതും അതുപോലെ കുറേയധികം കുറ്റങ്ങളും കുറ്റകൃത്യങ്ങളും പീഡനങ്ങളും ഇപ്പോൾ കേരളത്തിൽ കൂടിയിട്ടുണ്ടെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞ റിപ്പോട്ട് അതായത് ഈ ഗവൺമെൻ്റിതൊക്കെ ദേ ഇപ്പം ഈയിടെയായിട്ടിപ്പം കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കു മുമ്പ് അഞ്ചൽ അതായത് തിരുവനന്തപുരം പോകുന്ന റൂട്ടിൽ അഞ്ചലിൽ നടന്നതാണ് ഒരു ലഹരിക്കടിമയായ ഒരു യുവാവ് തൻ്റെ വീട്ടിലുള്ള അമ്മ അച്ഛൻ അനിയൻ എല്ലാവരെയും വെട്ടി പരിക്കേൽപ്പിക്കുകയും മറ്റേ ലഹരി മയക്കുമരുന്നിന് അടിമയാണെന്ന് അറിയുകയും വീട്ടിൽ ലഹരിക്ക് പൈസ കൊടുക്കാത്തതിൻ്റെ പേരിലതിന് അതിക്രൂരമായി സ്വന്തം അനിയനേയും തല അടിച്ചു പൊട്ടിച്ച് കൊന്നു പിന്നീടാണ് പിന്നീട് പിന്നീട് നമ്മളെ പത്തനംതിട്ടയിൽ ആണെങ്കിൽ പത്ത് അമ്പത് പേരൊരു പെങ്കൊച്ചിനെ ഒറ്റയ്ക്കിട്ട് പീഡിപ്പിച്ചു അതിക്രൂരമായി അത് അതൊക്കെ കണ്ട അത് അവനെ അവനെയൊക്കെ ജീവപര്യന്തം കൊടുക്കണം ജീവപര്യന്തം പിന്നെ നമ്മുടെ ഈ നാട്ടിലിപ്പം ഇപ്പോൾ കേരള പോലീസും അതുപോലെ തന്നെ നമ്മുടെ എക്സൈസും ഫോറസ്റ്റും എല്ലാം കൂടെ ഒരുമിച്ച് സൗഹൃദ കൂട്ടായ്മകളുണ്ടാക്കി ഇപ്പം നമ്മളെ കേരളത്തിനെ ലഹരിയിൽ നിന്ന് മുക്തരാക്കുകയാണ് അതുപോലെ തന്നെ ഇപ്പോൾ തന്നെ എല്ലായിടത്തും അത് അതുപോലുള്ള സുരക്ഷകളും അതുപോലുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിപ്പിച്ചു ഇപ്പം കേരളം അതിനും നല്ലൊരു രാജ്യമാണ് ഒരു ഒരു സംസ്ഥാനമായി മാറുകയാണ് നമ്മുടെ ഈ കേരളം നമ്മുടെ ഈ കേരളത്തിനെ ഇപ്പം ദേ ഇപ്പം ഇവിടെയൊരു ഒരു കഞ്ചാവോ ഒരു എം ഡി എമ്മെയോ ഇപ്പം അങ്ങനെയൊന്നുമില്ല എല്ലാം വളരെ ക്ലീനാക്കിക്കൊണ്ടിരിക്കുന്നു